ഹലോ ആ ഇത് എസ് ബി ഐ ബാങ്കിലത്തെ മാനേജർ ആണോ ഞാൻ ഇതൊരു ലോണിന്റെ കാര്യത്തിനാണ് വിളിച്ചത് മറ്റൊരു വീട് കെട്ടുന്നെങ്കിൽ ഒരു എത്ര ലോണ് കിട്ടും ഇപ്പം ഏകദേശം അതെ അല്ലേ അപ്പോൾ

ആ ആ ആ ആ ലോണ് അതെ അല്ലേ അത് നമ്മൾ ഒരു പത്ത് ലക്ഷം പത്ത് ശം അതെ അല്ലെ ആ പത്ത് ലക്ഷത്തിന്റെ അടുത്ത് അത് തന്നെ നമ്മൾക്ക് ചെറിയ എന്ത് കൊണ്ട് വരേണ്ടത് ഡോക്യൂമെൻസെല്ലാം ആ ആ ആ ഓക്കേ മാം ഓക്കേ മാം ഓക്കേ ആ അതെ ആ ആ സ്ഥലത്തു തന്നെ ആ ആ മനസിലായി ആ ആ ആ ആ അതും ആ സാക്ഷികൾ സാക്ഷികൾ ഒപ്പ് വേണം അല്ലെ ആ ആ ഓക്കേ ആ ആ ഓക്കേ മാം ആ ഓക്കേ മാം ഓക്കേ അതേ അതായത് എത്ര മാസം വെയ്റ്റ് ചെയ്യേണ്ടി വരും മാം ആ അതെ അല്ലേ ആ ആ ആ അത് തന്നെ ആ ആ ആ ശരി മാം ഞാൻ മുടങ്ങാതെ ആ അത തന്നെ മുടങ്ങില്ല അത് കൃത്യമായിട്ട് അടക്കാം പിന്നെ ആ ആ ആ ആ ആ ഓക്കേ മാം അത് പ്രശ്നമില്ല ആ അല്ല ആ ആ വരാം വരാം ആ ശരി മാം ശരി